ഈ ഫ്രൈഡ് റൈസും ചിക്കന് കറിയെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആദ്യമേ ചിക്കന് എല്ലാം വൃത്തിയാക്കി കഴുകി വാ ഉപ്പും വിന്നാഗിരിയെക്കെ ഇട്ട് കഴുകി അത് വാലെയ്ക്ക് വെക്കണം എന്നിട്ട് അതിന്റെ സാവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെയിട്ട് വഴറ്റീട്ട് വഴറ്റി മുളക്പൊടിയും അത് വറ്ത്തായ വറുത്ത മുളക്പൊടിയും ഇച്ചരെ ശ് സൊല്പ്പം വേണേൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലാപ്പൊടി ഒക്കെ ചേര്ത്ത് നന്നായിട്ട് വഴട്ടിക്കഴിയുമ്പം ചിക്കനയിന്റകത്തിട്ട് വേവിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ പിന്നീട് വെന്ത് വരുമ്പോൾ വെന്ത് കറീ ഉപ്പൊക്കെ നോക്കി ഇതായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചരെ ഏലക്കായ്യൊക്കെ പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇച്ചരാ തേങ്ങാപ്പാൽ തനി പാലും ശകലം ഒഴിച്ച് എടുക്കാം എടുത്താൽ മതി ചിക്കന്കറിയങ്ങ് അപ്പം റെഡിയാകും പിന്നപ്പം അതിന്റെടയ്ക്ക് തന്നെ നമ്മൾ അതിന്റെ കൂട്ടത്തിത്തന്നെ ബിരിയാണി അരി ഒരു മണിക്കൂറ് വെള്ളത്തിലിടുക വെള്ളത്തിലിട്ടിട്ടത് കഴുകി വാലേയ്ക്ക് വെക്കണം അപ്പം പിന്നെ വെള്ളം വെച്ച് അതിൻറ്റാത്ത് മസാ കർവാപ്പെട്ടയും ഗ്രാമ്പൂം ഏലയ്ക്കായും കുരുമുളകും ഒക്കെ വെള്ളത്തിത്തന്നെയിട്ട് തിളപ്പിച്ച് തിളച്ച് തിളച്ച് കഴിയുമ്പം ഈ വാലയ്ക്ക് വെച്ച അരി അതിന്റെ കൂട്ടത്തിയിട്ട് വേ ഒരു മു മുക്കാവേവാവുമ്പം നമ്മൾ കോരി വാലെ കോരി വെക്കണം ചോറ് കൊരിയെക്കെ വെക്കുന്ന ആ പാത്രത്തിൽ കോരി വെക്കുക എന്നിട്ട് പിന്നീട് നമ്മളൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് വെച്ചിട്ട് അതിനാത്തിച്ചിരി നെയ്യ് ഒക്കെ ഒഴിച്ച് ഇന്നെ കശുവണ്ടീം ഒണക്കമുന്തിരിങ്ങായും ഒക്കെ വഴ വറൂത്ത് വെക്കണം എന്നിട്ട് ഇച്ചരെ ഇതക്കെ ഒഴിച്ചിട്ട് കുറെച്ചേ ഈ ചോറേ കുറെച്ചെ അതിന് ഇത്തരെ സവാള സവോളയോ ഉള്ളീം അതുവൊക്കെ വഴട്ടി നല്ല പോലൊരുവിധം മൂപ്പിച്ച് എടുത്ത് കശുവണ്ടീം മുന്തിരിങ്ങായ്ടെയെക്കെ കൂട്ടത്തിൽ തന്നെ ഇളക്കി വെച്ചിട്ട് കുറെച്ചെ ചോറങ്ങാട്ട് അയി പ്പാ ബിരിയാണി പാത്രത്തിലോട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കശുവണ്ടിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന അതും ഇങ്ങനെ നിരത്തി നിരത്തിയിടണം പിന്നെ പിന്നെ അങ്ങനങ്ങനെ കുറെശെ കുറെച്ച ചോറിടുക കുറെശ്ശെ ഈ കശുവണ്ടി അതുവെല്ലാങ്കൂടെ ഇടുക അങ്ങനെ പല ലെയറായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ചെറു തീയില് ഇട്ടിട്ട് അടച്ച് വെക്കണം നല്ലപോലെ ഒരു ആ നല്ലൊരാ ചെറു തീയിലെ ആകാവുള്ളു അല്ലെങ്കില് അടിയി വങ്ങിപ്പോവും ഒരു ശകലം വെള്ളവൊഴിക്കുന്നത് നല്ലതാണ് ഈ നെയ്യക്കെ ചേര്ത്തോമ്പം അടിക്കൊന്നും പിടിക്കത്തില്ല ഒരു സൊല്പ്പം വെള്ളം ഒഴിച്ച്

അങ്ങനെ വന്നതിന് ശേഷം അത് വ പത്ത് പതിനഞ്ച് മിന്റ്റ് അടച്ച് തന്നെ വെക്കണം കാറ്റൊന്നും കേ ആവിയൊന്നും പോകാതെ ആവീത്തന്നത് വെന്ത് ഇരിക്കണം അതിന്റെടയ്ക്ക് ഇറ്റ് നെയ്യൊഴിക്കുന്നത് ഇടയ്ക്കെടയ്ക്കിച്ചരെ നെയ്യും കൂടെ ഒഴിക്കുന്നത് നല്ലതായിരിക്കും ആ അങ്ങനെ ആവിയും അങ്ങനെ ആവി പോകാതെ അടച്ച് കുറെ സമയം വെക്ക്വേം ഇ ഇതാ ഇപ്പം നമ്മൾ കറിയക്കെ ഒ ഒ ഒരു ഒരു പാ ഒരട്പ്പേ ഗ്യാസേലാവുമ്പോഴത്തേക്ക് നമ്മക്കൊരട്പ്പേ കറിയും വെക്കാം ഒരട്പ്പെ നമുക്ക് ഈ ബിരിയാണി ചോറ് വേവയ്ക്കാനുള്ള ബിരി ഉള്ള സംവിധാനങ്ങളക്കെ ചെയ്യാം

അങ്ങനെട് എടുക്കുമ്പോൾ ഞാനങ്ങനെയാണ് വെക്കുന്നത് പിന്നെ പലര് പല രീതിക്കക്കെ ചെയ്യും ഓരോത്തര്ക്ക് ഓരോ രീതിയായിരിക്കും ചിലർ അരി മരീം വെള്ളോം കൂടെ വെച്ച് പറ്റിച്ചെടുക്കും എനിക്കാ എന്നെ സംബന്ധിച്ച് എനിക്കതി അതിനോട് താല്പ്പര്യ എന്നാന്നെചാ പറ്റിച്ചെടുക്കുമ്പം ഒരു വഴ്വഴ്പ്പൊക്കെ കാണോ കഞ്ഞിപോലൊരു കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ കോരിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെയാ വള്വള്പ്പ്പോണക്കൊള്ള ഇതക്കെ അങ്ങ് മാറും നല്ല പൊ പട്പടാ പൊട്പൊടാന്നുള്ള ചോറായിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെ വെച്ച് നോക്കുക